ഇന്നത്തെ കാലത്തെ എല്ലാ കുട്ടികളും ട്യൂഷൻ പോകുന്ന കുട്ടികളാണ് ട്യൂഷൻ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് പിന്നീട് മിക്കവാറും വീടുകളില് അച്ഛൻ അമ്മയുടെ നിർബന്ധം കാരണം ട്യൂഷൻ പോകുന്ന കുട്ടികളുണ്ട് അപ്പോൾ സ്കൂളിന് പുറത്തുള്ള ട്യൂഷനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നല്ലതാണ് എന്നാൽ നല്ലതല്ലായെന്നും പറയും നമുക്ക് രണ്ട് വശങ്ങളും നോക്കാം ട്യൂഷൻ പോകുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ദോഷങ്ങളുമുണ്ട് ആദ്യം ഗുണങ്ങള് പറയാണ് വെച്ചാൽ തീർച്ചയായും ഒരു കുട്ടിക്ക് നോക്കുകയാണെങ്കിൽ ട്യൂഷൻ പോവുമ്പോൾ കൃത്യമായി എല്ലാം കാര്യങ്ങളും ചെയ്ത് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ

ഏകദേശം രണ്ടും ഏകദേശം സാമ്യമുള്ള ഒന്നായിരിക്കും ഒരു അൻപത് കിലോ വെയ്റ്റുള്ള കുട്ടിക്ക് കൊണ്ടു പോകുന്ന പുസ്തകങ്ങളുടെ വെയ്റ്റും അത്രതന്നെ ഒക്കെ ഉണ്ടാവുമെന്ന് പറയാം കാരണം അത്രയും പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളും കുട്ടികൾ സ്കൂളിലോട്ട് കൊണ്ടു പോവുന്നത് അതുപോലെ തന്നെ തിരിച്ചു വൈകുന്നേരം വരുന്ന സമയത്തു ട്യൂഷൻ പോകുന്ന കുട്ടികളാണെങ്കിൽ തിരിച്ച് കഴിയുമ്പോൾ അവർക്ക് വീട്ടിലൊട്ടെത്തുന്ന സമയത്ത് ഒരുപാട് ക്ഷീണവും മറ്റു കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാറുണ്ട് പിന്നെ ട്യൂഷൻ പോവേണ്ട ആവശ്യം വരുന്നത് എവിടെയാണെന്നു വെച്ചാൽ സ്കൂളിൽ ടീച്ചർ നന്നായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ എടുക്കാതെ വരുമ്പോഴാണ് കാര്യങ്ങൾ അവിടെ മനസ്സിലാകാതെ വരുമ്പോഴാണ് ട്യൂഷൻ പോകേണ്ട ആവശ്യം എന്നാൽ ട്യൂഷൻ പോകുന്ന സ്ഥലത്തും ഇതേ കാര്യമാണ് ആവർത്തിക്ക് ആവർത്തിക്കുകയാണെങ്കിൽ അവിടെ ട്യൂഷൻ പോയിട്ടും കാര്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ട്യൂഷൻ പോയിട്ടും അവിടെ പറയണ കാര്യങ്ങൾ അവിടെ പറയണ കാര്യങ്ങൾ മനസ്സിലാക്കി അന്നു തന്നെ വീട്ടിൽ വന്ന് പഠിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് നല്ലത് പക്ഷെ അവിടേയും കാര്യങ്ങൾ കേട്ടു കേട്ട് പോവുകയാണ് ഒന്നും ഒന്നും നമ്മൾ എന്താ പറയുക മനസ്സിരുത്തി ഒന്നും പഠിക്കാണ്ടിരിക്കുകയാണെങ്കിൽ ട്യൂഷൻ പോയിട്ടും വലിയ കാര്യമില്ല എന്ന് തന്നെ പറയാം പിന്നെ ഇന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ ട്യൂഷൻ ഒരുപാട് എന്താ പറയുക ഡിമാന്റുള്ള ഒരു കാലഘട്ടമാണ് കാരണം എത്രയോ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതൽ ഇപ്പോൾ ട്യൂഷൻ പോവാൻ തുടങ്ങുകയാണ് വീട്ടുകാരുടെ നിർബന്ധം നിർബന്ധം വഴി ട്യൂഷന് പോകുന്ന ഒരുപാട് കുട്ടികളും ഉണ്ട് അങ്ങനെ അങ്ങനെ പോവണ കുട്ടികൾക്ക് ഒരുപാട് സമ്മർദ്ദവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ ട്യൂഷൻ പോകുന്ന സമയത്തു നമ്മൾ അതിനെ എക്സ്ട്രാ നോട്ടുകളും മറ്റു കാര്യങ്ങളും ആവശ്യമുണ്ട് അവിടെ ഒരുപാട് ഹോംവർക്കും മറ്റു കാര്യങ്ങളൊക്കെ തരുകയാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം കൂടി നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടു പോവാൻ സാധിക്കില്ല എന്നു തന്നെ പറയാം ഇപ്പോൾ ട്യൂഷൻ പോകേണ്ട അത്യാവശ്യം ഉള്ളവർക്ക് ട്യൂഷൻ പോകാം മിക്കവാറും സ്കൂളുകളിൽ നിന്നെടുക്കുന്ന പാഠഭാഗങ്ങൾ തന്നെ ആയിരിക്കും ട്യൂഷനിലും എടുക്കുക അത്ര വ്യത്യാസം തന്നെ ഉളളൂ